ഹലോ കൊച്ചിൻ ബേക്കറിയാണോ ആ എനിക്ക് ഇന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു രണ്ട് കിലോ കേക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു ബർത്തഡേ കേക്കാണ് കേട്ടോ ആ എനിക്ക് വേണ്ടത് ഏതൊക്കെ ഐറ്റമാണുള്ളത് വൈറ്റ് ഫോറെസ്റ്റ് ഉണ്ടോ ആ ഈ ഓരോന്നിൻറെയും റേറ്റ് ഒന്ന് പറയുമോ എന്താണ് വൈറ്റ് ഫോറെസ്റ്റിന് ഏകദേശം എന്ത് റേറ്റ് ആകും

വൺ കെ ജി ആ പ്ലം വേണ്ട പ്ലം വേണ്ട ഇത് ബർത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു അപ്പോള് ആ അപ്പോള് റെഡ് ഫോറെസ്റ്റിന് റേറ്റ് ഇത്തിരി കൂടുതലാണല്ലോ ആ ആ ഞാൻ അത് എന്നാല് ആ റെഡ് ഫോറെസ്റ്റ് എടുത്തുകൊള്ളൂ അപ്പോള് അത് ഉച്ചയാകുമ്പോഴത്തേക്കാണ് എനിക്ക് വേണ്ടത് ഉച്ച ഒരു ഒന്നരയോട് കൂടിയാണ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോള് ആ സമയത്ത് എത്തിക്കാൻ പറ്റുമോ ആ എന്നാലും മതി അപ്പം ആ ആയിക്കോട്ടെ ആ എന്നാല് സൗകര്യമായിരുന്നു എന്താണെന്നാല് ആ സമയത്ത് വരാനായിട്ട് പിന്നെ ചില അസൗകര്യമുണ്ട് അപ്പോള് കൊണ്ടു തരും ആ സെൻഡ് ചെയ്യാം കേട്ടോ ആ പിന്നെ ഇതില് എഴുതാനുള്ളത് ആ എഴുതാനുണ്ട് അപ്പോള് ഞാൻ അതിൻ്റെ എങ്ങനെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ കൊച്ചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറയാമത് അതിന്റെ വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ ഇട്ടുതന്നാല് അതനുസരിച്ച് ആ ഓക്കേ ഓക്കേ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ റെഡ് ഫോറെസ്റ്റാണ് ആ റെഡ് ഫോറെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് കിലോ ആ അപ്പോള് പിന്നെ ഇത് പിന്നെ ഡെലിവെറിയുടെ സമയത്ത് പൈസ തന്നാല് മതിയോ അതോ മുൻകൂറ് ഗൂഗിൾ പേ ചെയ്യണമോ

ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ താങ്ക് യൂ